മലയാള ഭാഷയുടെ ഉൽഭവം എന്ന് പറയുന്നത് ഒൻപതാം നൂറ്റാണ്ടിന്റെ അവസാന പദത്തിൽ നിന്നാണ് ഏ ഡി എണ്ണൂറ്റി മുപ്പതില് വാഴപ്പള്ളി ലിഖിതത്തില് മലയാളം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു മലയാള ഭാഷ ഒരു സ്വതന്ത്ര ഭാഷ എന്ന നിലയിലുള്ള ചരിത്രവും പരിണാമവും ഒൻപതാം നൂറ്റാണ്ടിലെ വിളംബര രേഖയില് നിന്നും കണ്ടെത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട നാല് ദ്രാവിഡ ഭാഷകളില് മലയാളം സ്വതന്ത്രവും സ്വന്തം സാഹിത്യകൃതികളില് വികസിപ്പിക്കാന് വിലയിരുത്തിയതുമാണ് അപ്പോൾ പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ മലയാള ഭാഷ ഒരു പ്രത്യേക ഭാഷയായി വികസിക്കാൻ തുടങ്ങി മലയാളഭാഷയുടെ ചരിത്രവും പരിണാമവും ഒൻപതാം നൂറ്റാണ്ട് മുതൽ മലയാളത്തിൽ ലിപി ആക്കിയ വട്ടെഴുത്ത് ലിപിയില് കണ്ടെത്തിയിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ നിലവിൽ വന്ന ഗ്രന്ഥലിപിയില് നിന്നാണ് മലയാള ഭാഷയുടെ ആധുനിക ലിപി വികസിപ്പിച്ചെടുത്തത് ദ്രാവിഡ ഭാഷകളിലെ മലയാളം കൂടുതലും തമിഴില് നിന്നുള്ള ലിപിയായി ഉല്ഭവിക്കുകയും കൂടുതല് പ്രാചീനം പ്രാചീനവും ഒന്പതാം നൂറ്റാണ്ടോടെ ഒരു സ്വതന്ത്ര ഭാഷയായി മാറുകയും ചെയ്തതാണ് മലയാളം എന്ന് പറയുന്നത് കണക്കുകള് പ്രകാരം ഏകദേശം മുപ്പത്തിയെട്ട് ദശം ദശലക്ഷത്തിലധികം ആളുകള് മലയാളം സംസാരിക്കുന്നു മലയാള ഭാഷയുടെ ലിപിയെ കുറിച്ചും മലയാളത്തിന്റെ ചരിത്രത്തെ കുറിച്ചും നിരവധി അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും ഉണ്ടായിട്ടുണ്ട് കേരള പാണിനി ഏ ആര് രാജ വര്മ്മയുടെ ക്ലാസിക് മലയാള വ്യാകരണഗ്രന്ഥം അനുസരിച്ച് കേരള പാണി പാണിനിയും മലയാള ഭാഷയ്ക്കുള്ള ആദരവായിരുന്നു കേരള പാണിനിയെ കൂടാതെ ജോര്ജ് മാത്തന് ഹെര്മന് ഗുണ്ടര്ട്ട് കോവുണ്ണി നെടുങ്ങാടി തുടങ്ങിയ വ്യാകരണ പണ്ഡിതന്മാര് ഇത്തരം വ്യാകരണ ഗ്രന്ഥങ്ങള് രചിക്കുകയും മലയാള ഭാഷയുടെ ചരിത്രത്തിന് സംഭാവന നല്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛന് മലയാള സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു ആധുനിക മലയാള സാഹിത്യത്തിന്റെ ചരിത്രത്തെ സംഭാവന ചെയ്യുകയും സ്വാധിനിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛന് എന്ന് പറയുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലെ കവിയായിരുന്നു കുഞ്ചന് നമ്പ്യാര് അപ്പോൾ അതിന്റെ പ്രാരംഭ രൂപത്തില് ഈ മലയാള ഭാഷയുടെ വീക്ഷണ സാഹിത്യത്തെ സ്വാധിനിച്ച മലയാള സാഹിത്യത്തിനു മതിയായ സംഭാവനകള് നൽകിയിട്ടുണ്ട് നല്കിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എണ്പത്തി ഒൻപതില് പുറത്തിറങ്ങിയ മലയാളത്തിലെ ആദ്യ നോവലാണ് നോവലാണ് ഒയ്യാരത്ത് ചന്തു മേനോന്റെ ഇന്ദുലേഖാന്ന് പറയുന്നത് അപ്പോൾ ഈ നോവൽ യാഥാസ്ഥിതിക ഹിന്ദു കുടുംബത്തിൽ പാശ്ചാത്യ ആശയങ്ങളുടെ സ്വാധീനത്തെ ചിത്രീകരിക്കുന്നു ആധുനിക മലയാളസാഹിത്യം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആരംഭിച്ചത് പാശ്ചാത്യ സാഹിത്യ രൂപങ്ങളെ സ്വാധീനിക്കുക പെട്ടതുമാണ് പിന്നെന്താണ് മലയാള മലയോര നാട് എന്ന അർത്ഥം അർത്ഥത്തിൽ നിന്നാണ് മലയാളം എന്ന വാക്കുണ്ടായിട്ടുള്ളത് അല്ലേൽ കോട്ട തമിഴ് കടുക് അവസാനമായി മലയാളം എന്നിവയ്ക്കൊപ്പം ദ്രാവിഡ ഭാഷകളുടെ തെക്കൻ ഗ്രൂപ്പിൽ മലയാളം ഉൾപ്പെടുന്നു അപ്പോൾ ഇത് തമിഴ് ഭാഷയുടെ സ്വാധീനം വളരെ കൂടുതലായിരുന്നു എന്നിരുന്നാലും മലയാളഭാഷയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഒൻപതാം നൂറ്റാണ്ടിന്റെ അവസാന പദത്തിൽ കണ്ടെത്താവുന്ന ഒരു പ്രത്യേക ഭാഷയായി കണക്കാക്കപ്പെടുന്നു ഏ ഡി എണ്ണൂറ്റി മുപ്പതില് വാഴപ്പള്ളി ലിഖിതത്തില് മലയാളം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു കേരള സംസ്ഥാനത്ത് സമീപ പ്രദേശങ്ങളിലും മാത്രമാണ് മലയാളം കൂടുതലായി സംസാരിക്കുന്നത് ശുദ്ധമായ തമിഴ് ഭാഷയുടെ പ്രാദേശിക ഭാഷാ ഭേദമല്ലാതെ മറ്റൊന്നുമല്ല മലയാളം എന്നൊരു ചര്ച്ചയുണ്ട് അപ്പോൾ മലയാള ഭാഷയുടെ ചരിത്രത്തിലും പരിണാമത്തിലും അവരാ അവരായിരു അതായത് നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛനൊക്കെയായിരുന്നു തുഞ്ചത്തെഴുത്തച്ഛനു ശേഷമുള്ള കാലഘട്ടത്തില് രചിക്കപ്പെട്ടതും അദ്ദേഹത്തിന്റെ രചനാ രീതിയെ അടുത്ത് അനുകരിച്ചതുമായ നിരവധി പുരാണങ്ങളുണ്ട് ഇരുപതാം നൂറ്റാണ്ടില് മലയാള മലയാള ഭാഷയില് കേരളത്തെ അടിസ്ഥാനമാക്കിയുള്ള സാഹിത്യപരവും സാംസ്കാരികവുമായ പ്രവര്ത്തനങ്ങള് വളരുന്നതിനൊക്കെ ഇത് ഇടയാക്കിയിട്ടുണ്ട് മലയാള ഭാഷയുടെ ചരിത്രത്തിലും പരിണാമത്തിലും തമിഴിന്റെ സ്വാധിനം അതിന്റെ ആദ്യകാലഘട്ടത്തില് തന്നെ മനസിലാക്കാന് കഴിയുന്ന ഒന്ന് ഒന്നാണ്